ഹലോ ഞാൻ ഒന്ന് എറണാകുളത്തുനിന്ന് വിളിക്കുന്നതായിരുന്നു അവിടെ കേരളത്തിൽ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരുന്നു എവിടെ ആയിരുന്നു സ്ഥലം സ്ഥലം എവിടെ ആയിരുന്നു സുൽത്താൻ ബത്തേരി അല്ലേ അവിടെ ഏതൊക്കെയാ ഫുഡ് ഏതൊക്കെയാ ഉള്ളത് ആ ആ ആ ആ അതെ ഓക്കെ ഓക്കെ ഈ ഊണിന് എന്തൊക്കെയാ കറികളൊക്കെ എന്തൊക്കെയാ ഉണ്ടാവുക

ആ ഓക്കേ ആ ഓക്കെ ഈ മീനിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളത് മീൻ വെറൈറ്റീസും ഉണ്ടാകും അല്ലേ മത്തി ആ ചെമ്മീൻ ആ ഓക്കെ ഓക്കെ പിന്നെ ഇതുണ്ടോ കരിമീൻ ഉണ്ടോ കരിമീൻ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ നോൺവെജ് ആയിട്ടുള്ളത് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഇല്ലേ ആ ഓക്കെ ഓക്കെ ആ ചിക്കൻ്റെ എല്ലാ എല്ലാ വെറൈറ്റീസും ഉണ്ടല്ലേ ഇപ്പോൾ ഒരു ഊണിന് എത്ര രൂപയാ വരുന്നത് ഇത്ര ആയാൽ നോൺവെജ് അടക്കം കൂട്ടുവാണെങ്കിൽ എത്ര രൂപ വരും എയ്റ്റി ആ അതിൻ്റെ പ്രൈസും കൂടെ വരും അല്ലേ ആ നോർമലിൽ നമുക്കുള്ള മറ്റേ സാധനങ്ങൾ ഒക്കെ ഉണ്ടാകും ട്രഡീഷണൽ ഐറ്റംസ് അതായത് ഇപ്പോൾ തന്നെ നിറയെ പോയിട്ടുണ്ടാകും അല്ലേ അല്ല പായസം ഉണ്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ ഇത് സുൽത്താൻ ബത്തേരി അല്ലേ അവിടെ തന്നെ ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് എന്നാൽ നാളെ ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരും ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ശരി ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം